ഒരു കുടുംബത്തിൽ സ്ത്രീകളും പുരുഷന്മാരുടെയും കടമകൾ വളരെ കൃത്യമായിട്ട് വേർതിരിക്കപ്പെടുന്ന ഒരു ട്രഡീഷ്ണൽ പാരമ്പര്യ സാഹചര്യത്തിലെ സമൂഹത്തിലാണ് ഞാൻ വളർന്ന് വന്നത് സാധാരണ ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ കടമയിൽ പെടുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അതായത് വീടുമായിട്ട് സ ബന്ധിക്കുന്ന കാര്യങ്ങൾ ഭക്ഷണം തയ്യാറാക്കുക വീട് വൃത്തിയാക്കുക വീടും പരിസരവും വൃത്തിയാക്കുക വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരെ പരിചരിക്കുക ഇങ്ങനെ ഒരു ഇത് തന്നെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ജോലികളാണ് ഏറ്റവും കൂടുതലായിട്ടും ഒരു പരിധി വരെ ഞാൻ കണ്ടു വളർന്നത് അതേ സമയം പുരുഷന്മാരാണെങ്കിൽ വീട്ടിൽ അധികം ജോലിയൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകളെ സഹായിക്കുന്നവരുമുണ്ട് സഹായിക്കാത്തവരുമുണ്ട് എൻ്റെ സാധാരണ പുരുഷന്മാർ പിന്നേ വീടിന് വെളിയിൽ പോയി പിന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് സാമ്പാദിക്കുന്നു അതായത് തൊഴിൽ ചെയ്തു സാമ്പാദിക്കുന്നവനാണ് അവർ കൂടുതലും പിന്നെ പുരുഷന്മാരിൽ കൂടുതലും വീട്ടിലാണെങ്കിൽ പോലും ഭാരപ്പെട്ട ജോലികൾ അതായത് ഹെവി ആയിട്ടുള്ള വർക്കുകൾ ഒക്കെ ചെയ്യുന്നത് ഒരു പരിധി വരെ പുരുഷന്മാരുടെ ചുമതലയായിരുന്നു സ്ത്രീകൾക്ക് ഹെവി ജോലികൾ അതുപോലെ ഭാരപ്പെട്ട പണികളൊന്നും തന്നെ കൊടുക്കുകയില്ല കൊടുക്കത്തില്ലായിരുന്നു അന്ന് ഈ ഒരു അടുത്ത കാലഘട്ടത്തിലായിട്ട് മേബി ഒരു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് മുപ്പത് വർഷംകൊണ്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ ചുമതലകളിൽ നല്ല വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഒരു കാലത്ത് സ്ത്രീകൾ കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കുന്നവരല്ലായിരുന്നു പുരുഷൻ സാമ്പാദിച്ച്കൊണ്ട് വരുന്നത് അത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആക്കി അഴിച്ച് കുടുംബം നോക്കുകയായിരുന്നു ഭാര്യമാരുടെ അല്ലെ സ്ത്രീകളുടെ കടമയെങ്കിൽ പിന്നെ ഈ കഴിഞ്ഞ മുപ്പത് വർഷ കാലഘട്ടം കൊണ്ട് പിന്നെ നല്ല വ്യത്യാനം വന്നിരിക്കുന്നത് ഒത്തിരി സ്ത്രീകൾ പഠനം നന്നായിട്ട് പഠിക്കുകയും തൊഴിൽ സമ്പാദിക്കുകയും അവര് കുടുംബത്തിനുള്ള ജീവിത മാർഗം അതായത് കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരുന്നവരായിട്ട് മാറിയിട്ടുണ്ട് അത്കൊണ്ട് തന്നെ ഇപ്പോഴും കുടുംബങ്ങളിൽ പുരുഷനും സ്ത്രീയും ഒരു പോലെ പിന്നെ ജോലി ചെയ്തു ആ പണം സാമ്പാദിക്കുന്നവരും കുടുംബത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കുന്നവരുമായിട്ട് മാറുകയും ആ ഒരു കാരണം കൊണ്ട് തന്നെ വീട്ടിലെ ജോലി ഏതാണ് ഇപ്പോൾ ഒരു കാലത്ത് സ്ത്രീ മാത്രം നോക്കികൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഇടപഴകുകയും രണ്ട് പേരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒരു നല്ല ശതമാനം പക്ഷെ വളരെ പാരമ്പര്യം കാത്ത് സൂഷിക്കുന്ന അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം തന്നെ നടത്തുന്ന ഒരു പറ്റം പുരുഷന്മാരുടെ ഇടയിൽ ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ വീടിന് പുറത്ത് ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞും അവരുടെ ട്രഡീഷ്ണലായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കുടുംബം നോക്കുക എന്ന് പറയുന്ന ആ ഒരു വലിയ ഉത്തരവാദിത്തം കൂടെ ചെയ്യേണ്ട സാഹചര്യവും ഉള്ളതായിട്ട് ഞാൻ കാണാറുണ്ട് എൻ്റെ കുടുംബത്തിലെ ഷെയർ ചെയ്യപെട്ട് പോയിട്ടുണ്ട് എങ്കിൽ പക്ഷേ ഒന്നോ രണ്ടോ കുടുംബങ്ങളിൽ ഇതും എൻ്റെ കുടുംബത്തിനോട് ചേർന്നുള്ള കുടുംബങ്ങളിൽ ഇതും ഞാൻ കാണാറുണ്ട്